നമ്മളെ പ്രദേശത്ത് ആരോഗ്യ പരിരക്ഷ എന്നു പറഞ്ഞുകഴിഞ്ഞാൽ മെച്ചപ്പെടുത്താനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പം ഗവൺമെൻറ്റും എല്ലാ കാര്യം ചെയ്യുന്നത് കാരണം നമ്മുടെ നാട്ടിൽത്തന്നെ മാനന്തവാടിയെന്നു പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ജില്ലാ ഹോസ്പിറ്റലായിരുന്നു ആദ്യം ഇപ്പോൾ അത് മെച്ചപ്പെടുത്തി നമ്മളെന്തു ചെയ്യുകയാ മെഡിക്കൽ കോളേജൊക്കെ ആയിട്ട് പിള്ളേർക്ക് പഠിക്കാനുള്ള അവസരവും പിള്ളേർക്ക് താമസിക്കാനുള്ള സൗകര്യവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പം വായനാട്ടിലെ എന്താ പറയുക ആകെയുള്ളൊരു മെഡിക്കൽ കോളേജെന്നു പറഞ്ഞാലിപ്പം അത് താല്കാലികമായിട്ടാണെങ്കിലും അത്യാവശ്യം ആധുനിക സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത് പിന്നെന്താന്നു വെച്ചുകഴിഞ്ഞാൽ ആൾക്കാർക്കാണെങ്കിലിപ്പം നമുക്ക് ഇവിടെ എന്തായായാലും ഒരു കോളനിയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടന്നു അടുത്തുള്ള ഒരു ആശുപത്രി എന്നുപറഞ്ഞാൽ മാനന്തവാടിക്ക് വരണം അടുത്തുള്ളത് എന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യകേന്ദ്രം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് നമുക്ക് ചെറിയ പനിയോ ജലദോഷമോ ഇപ്പം എന്തെങ്കിലും ശ്വാസമോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യകേന്ദ്രമാണ് നമുക്ക് അപ്പപ്പാറ പിന്നെ കാട്ടിക്കുളത്തുണ്ട് പിന്നെ എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ എന്താ പറയുക അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവിടേക്ക് നമുക്ക് പോവാനുള്ള സൗകര്യമുണ്ട് അവിടെ നല്ല സൗകര്യത്തോടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഉള്ളത് നമ്മളെ എല്ലാവർക്കും അതായതിപ്പോൾ ചെറിയ കുട്ടികൾ കുട്ടികളുമുതൽ വലിയ വലിയ ആൾക്കാർ വരെ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള തിരക്കും നിയന്ത്രിക്കാം അവിടെയുള്ള തിരക്ക് നമുക്ക് ഒഴിവാക്കാം അപ്പം മെച്ചപ്പെടുത്താൻ ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റ് ചെയ്യുന്നത്